ആ ബ്രോസ്റ്റർ ഡെലിവറിയല്ലേ ഞാന് പിന്നെ ബ്രോസ്റ്റേഡ് ഡെലിവറി ചെയ്യാൻ പറഞ്ഞിരുന്നത് ചിറവാലേൽ തായങ്കരിയാണ് അത് മാറ്റണം അത് മാറ്റിയിട്ട് സെൻറ്റ് ആൻറ്റണീസ് ചർച്ച് തായങ്കരി എന്നുള്ള വിലാസത്തിൽ സാധനം എത്തിച്ചാൽ മതി അപ്പോൾ സാധനമെത്തിക്കുമ്പോൾ ഒന്ന് വിളിക്കുക പൈസ ഞാൻ കറക്റ്റായിട്ട് ഡെലിവറി ബോയ്ടേയ്യില് കൊടുത്തേക്കാം അതുകൊണ്ട് ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം